ഹോട്ടൽ ആതിഥേയത്തെ വ്യവസായത്തിൽ സാങ്കേതിക വിദ്യ ഒത്തിരി രീതിയിൽ ഇന്നത്തെ തലമുറയെ സഹായിക്കുന്നുണ്ട് പണ്ട് കാലത്തെ അപേക്ഷിച്ച് റൂം ബുക്ക് ചെയ്യുന്നതിനുള്ള അസൗകര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്കില്ല വിരൽ തുമ്പിൽ നമുക്ക് റൂമുകൾ ബുക്കുകൾ ബുക്ക് ചെയ്യാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും സൗകര്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിഞ്ഞ് അതിൻ്റെ അതിനുണ്ടാകുന്ന ചിലവുകൾ പോലും മുൻകൂട്ടി അറിഞ്ഞ് നമുക്കോരോ കാര്യങ്ങളും ചെയ്യാനുള്ള സൗകര്യം ഇപ്പം നമ്മുടെ വിരൽ തുമ്പിൽ ലഭ്യമാണ് ഇതു തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും സേവനം നമുക്ക് ലഭിക്കുന്ന സാങ്കേതിക വിദ്യ എപ്പോഴും നന്മ മാത്രമേ ഓരോ മനുഷ്യർക്കും കൊണ്ടു വരുന്നുള്ളു എല്ലാ കാര്യങ്ങളിലും എളുപ്പം ലഭിക്കുകയാണ് അല്ലെങ്കിലേതെങ്കിലുമൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായം ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ പോലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പോലും അറിയത്തില്ലാത്ത ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഓരോ ഹോട്ടൽ അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളുടെയും നമുക്ക് ലഭ്യമാണ് അപ്പം ഈ പുതിയ സാങ്കേതിക വിദ്യ എന്നു പറയുന്നത് തികച്ചും നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു ഒരു റിസൾട്ടാണ് അല്ലെങ്കിലൊരു ബലമാണ് അതിൽ നിന്ന് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമുക്ക് ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാർ വരെ നമ്മുടെ സാങ്കേതിക വിദ്യക്ക് കീഴിലായിട്ടുണ്ട് നമ്മുടെ ബിസിനസ്സ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ നമുക്കിപ്പോൾ സാങ്കേതിക വിദ്യകളൊന്നും അറിഞ്ഞില്ലെങ്കിൽ മുൻപോട്ട് പോകാൻ പോലും സാധിക്കുകയില്ല പണ്ടൊക്കെ നമുക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് നമുക്കാകെ മറ്റൊരു സാഹചര്യം ഇല്ലായിരുന്നു പൈസ അടയ്ക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളില്ല ഇപ്പം നമുക്ക് ഗൂഗിൾ പേ പോലെയുള്ള വലിയ സൗകര്യങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഫോൺപേ ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തെ ഒത്തിരി സാഹചര്യങ്ങൾ സൗകര്യങ്ങളും നമുക്ക് ഒരുങ്ങി കിട്ടുമ്പോൾ എല്ലായിടത്തും ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പം ചെറിയ പെട്ടിക്കടകൾ പോലും ഈ സൗകര്യങ്ങളൊക്കെയാണ് നമുക്ക് നൽകുന്നത് അപ്പം ഒരു ഹോട്ടലിലൂടെ കടന്നു ചെല്ലുമ്പം വേണെ ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആൾക്കാർ വരുന്നു നമുക്കുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നു ആവശ്യാനുസരണം നമുക്ക് വേണ്ടവിധം നമ്മുടെ കൈയ്യിലുള്ള മൂല്യത്തെ അല്ലെങ്കിൽ നമ്മൾ നെൽകുന്ന മൂല്യത്തിന് പൂർണ്ണമായും നൂറ് ശതമാനവും നീതി പുലർത്തുന്ന തരത്തിലുള്ള സേവനങ്ങളാണ് നമുക്കിപ്പം സാങ്കേതിക വിദ്യ കാരണം നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ജോലി ലഭിക്കുവാൻ ഇത്തരം സാങ്കേതിക വിദ്യകളുടെ വളർച്ച തടസ്സപ്പെടുന്നു എന്നു പറയുന്നുണ്ടെങ്കിൽ പോലും സാങ്കേതികവിദ്യ വളരും തോറും മനുഷ്യൻ്റെ കൂടുതൽ ആവശ്യങ്ങൾ വരികയാണ് കാരണം ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് കൂടുതലുമൊരു വൈറ്റ് കോളർ ജോബുകൾ ചെയ്യാനുള്ള സഹായം കൊടുത്തെങ്കിലും ഒരു മാൻ പവറിൻ്റെ ആവശ്യമുള്ള റിസോഴസ്ഫുള്ളായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിപ്പോഴും ഹ്യൂമൻ പവർ തന്നെ ഫിസിക്കൽ എക്സിസ്റ്റൻസവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പം ഇത്തരം ആവശ്യങ്ങളൊക്കെ ഒത്തിരി നല്ല രീതിയിൽ നമുക്ക് ലഭ്യമാക്കുന്ന വിധത്തിൽ സാങ്കേതിക വിദ്യ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇപ്പം സാങ്കേതിക വിദ്യയെക്കുറിച്ച് പിന്നെയും പിന്നെയും പറയുകയാണെങ്കിൽ തന്നെ ഓരോ ദിവസവും ഓരോ വ്യക്തിയും എഴുന്നേൽക്കുന്നതു പോലും ഫോൺ എടുത്തു കൊണ്ടാണ് അപ്പം നമുക്ക് പരസ്പരം ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പണ്ടൊക്കെ എന്നു പറഞ്ഞാൽ റേഞ്ചില്ലാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട് റീചാർജ് തീർന്നു പോകുന്ന അവസ്ഥകളുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് എന്തിനും ഏതിനും നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി പോലും വരുന്നില്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മുടെ തലമുറകൾ വളർന്നു വന്നു കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരം കണ്ടു പിടുത്തങ്ങളും അല്ലെങ്കിലിത്തരം മാറ്റങ്ങളും മനുഷ്യനെ കൂടുതൽ കൂടുതൽ വിദ്യാസമ്പന്നനാക്കി മാറ്റുന്നുണ്ട് ഓരോ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങുകയും ഹോട്ടൽ വ്യവസായത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഈ സാങ്കേതിക വിദ്യക്ക് സാധിച്ചിട്ടുണ്ട് പണ്ടൊക്കെയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തണുത്ത വെള്ളം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയെന്നുള്ളതേ ഉള്ളൂ മീൻസ് അങ്ങ് പൊരുത്തപ്പെട്ടു പോകാം ഇന്ന് പൊരുത്തപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ചൂട് വെള്ളമോ തണുത്ത വെള്ളവുമൊക്കെ നമ്മുടെ മുറികളിൽ തന്നെ ലഭ്യമാണ് നമ്മുടെ മുറി ഏ സി ആയിരിക്കുകയാണെങ്കിൽ ഹീറ്റിങ് ആ ഫെസിലിറ്റീസ് നമുക്ക് ലഭിക്കും പിന്നെ നമുക്ക് ടി വി വേണമെങ്കിൽ ടി വി ഉണ്ട് ഫ്രിഡ്ജ് നല്ല അലമാരകൾ നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും നല്ല ഭക്ഷണം അങ്ങനെ ഏറ്റവും നല്ല ഭക്ഷണം എറ്റവും ഹൈജീനിക്കായിട്ടുള്ള എറ്റവും വൃത്തിയുള്ള എറ്റവും രുചിയുള്ള ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ മനുഷ്യൻ്റെ ഉന്നമനത്തിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒന്നിനെയും കുറ്റം പറഞ്ഞു ജീവിക്കുക എപ്പോഴും എല്ലാറ്റിനെയും കുറ്റം പറഞ്ഞു ജീവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എല്ലാ കാര്യങ്ങളിലും നന്മയുണ്ട് അടിസ്ഥാനപരമായി മനുഷ്യന് നന്മയുണ്ട് അപ്പം ഈ നന്മയെല്ലാം ഹോട്ടൽ ആതിഥേയത്തെ വ്യവസായത്തിൽ നമുക്ക് ഈ സാങ്കേതിക വിദ്യ തന്നെ ഒരു വലിയ നന്മയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇനിയിത് കേൾക്കാം